നമുക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ ആരാധനയ്ക്കൊക്കെ അനുചരിക്കുന്ന ഒരുപാട് സംസ്കാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അതായതെന്നുവെച്ചാൽ ഓരോ ഓരോ ജാതിക്കാർക്കും ഓരോ അനുഷ്ഠാനങ്ങളും ഓരോ കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ നമുക്ക് അമ്പലത്തിലെ കാര്യങ്ങള് തന്നെ പറയാം അവർക്ക് അവിടെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചില അമ്പലങ്ങളിൽ താലപ്പൊലി പിന്നെ ചില അമ്പലങ്ങളിൽ നല്ല ഉത്സവം ആയിരിക്കും ചില അമ്പലങ്ങളിൽ തിറമഹോത്സവം ആയിരിക്കും തിറ മഹോത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെള്ളാട്ടമുണ്ടാകും അതുകഴിഞ്ഞിട്ട് അതുകഴിഞ്ഞിട്ട് പിറ്റേന്ന് അതായത് വെള്ളാട്ട് കഴിഞ്ഞയുടനെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തിറ അത് പിറ്റേ ദിവസം തിറ അതിൻ്റെ എല്ലാത്തിൻ്റേയും വെള്ളാട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിറയൊക്കെ നടക്കുകയുള്ളു അതുപോലെ തന്നെയിപ്പോൾ മഹോത്സവം എന്ന് പറഞ്ഞാൽ വല്യ വല്യ മഹോത്സവവും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം തൃശൂർ പൂരം ഒരു വലിയ ഒരു മഹോത്സവം തന്നെ ആണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കേരളത്തിന് മുഴുവൻ ആൾക്കാരും തൃശൂർ പൂരം സമയത്ത് നമുക്ക് അവിടെ അതിൽ കൂടുതലൊരു അറുപത് ശതമാനം ആൾക്കാരും നമ്മള് തൃശൂർ പൂരത്തിന് പോകുന്നവരാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ അനുഷ്ഠാനങ്ങളും ഓരോ ആചാരങ്ങളും ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്തതരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആണ്